പുരാതന കാലഘട്ടത്തിലെയും മദ്ധ്യ കാലഘട്ടത്തിലേയും പ്രശസ്തരായ രാജാക്കന്മാരെക്കുറിച്ച് വളരെ പരിമിതമായ പരിമിതമായ ഓർമ്മകൾ മാത്രമേ ഉള്ളു ആദ്യം ഭരിച്ചിരുന്നത് മുഗൾ വംശ രാജാക്കൻമാരായിരുന്നു പിന്നീട് അവരെ തോൽപ്പിച്ച് മറ്റ് രാജാക്കന്മാർ വന്നു കേരളത്തിലും നാട്ടു നാട്ടു പ്രമാ പ്രമാണികൾ നാട്ടുരാജാക്കന്മാരും നിലവിലുണ്ടായിരുന്നു പിന്നീട് ഇന്ത്യ മൊത്തം ആകെ ബ്രിട്ടീഷാധിപത്യം വരികയും ഇന്ത്യൻ ജനത അവരുടെ അടിമകളായി മാറുന്ന ഒരു കാലഘട്ടമായിരുന്നുണ്ടായിരുന്നത് പ്രിത്യേകിച്ചൊരു കഥ അങ്ങനേ പറയാൻ പാകത്തിനറിയില്ല അക്ബർ ചക്രവർത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ ആ മാത്രമേ ഓർമ്മയുള്ളു പിന്നേ ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ വളരെ വളരെ നോളജ് വൈസ്സും റിസോഴ്സ് വൈസ്സും സ്കോളർസ് വൈസ്സൊക്കെ വളരെ മുൻ സാമ്പത്തികമായിട്ടും വളരെ മുമ്പിലുണ്ടായിരുന്നൊരു ഇന്ത്യയായിരുന്നു ഇന്നെറ്റവും ഡെവലപ്പാവണ്ടൊരിന്ത്യയായിരുന്നു അതിനെ ബ്രിട്ടീഷ് പോർച്ചുഗൽ ഡച്ച് പോലെ പോലുള്ളവരുടെ കടന്നുകയറ്റം ചൂഷണവും മൂലം നമ്മൾ വളരെയധികം ഇപ്പോഴും ഒരു ഡെവലപ്പിങ്ങ് കൺ സ്റ്റേറ്റിലേക്ക് മന്നെ നിൽക്കുന്നത് ആണ് എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടി എപ്പോഴും ഒരു കോൺട്രവേഴ്സിയായിട്ട് ഫീൽ ചെയ്യുന്നു